ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ കുറിച്ച് പറയാനുണ്ടെങ്കില് മറ്റുള്ള രാജ്യങ്ങളിലെ വെച്ച് നോക്കുന്ന സമയത്ത് അല്ലേ മറ്റുള്ള അവരെ വച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര തുച്ഛമായിട്ടുള്ള പൈസക്ക് നമുക്ക് നമ്മള് കൊടുക്കുന്ന അതിനനുസരിച്ചിട്ടുള്ള ഒരു ആശുപത്രി സേവനങ്ങള് നമുക്ക് ലഭിക്കാറുണ്ട് പക്ഷേ ഒട്ടും എന്താണ് വൃത്തഹീനം വൃത്തിയില്ലാത്ത ഹോസ്പിറ്റലുകൾ ആണെന്ന് നമുക്കുള്ളത് അവിടെയാണ് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മള് പോകുന്നത് പല ഹോസ്പിറ്റലുകളും ശുചിത്വമില്ലായ്മകളായിട്ടുണ്ടാവാറുണ്ട് പിന്നെ ഇപ്പോൾ ഗവൺമെൻ്റ് ഹോസ്പിറ്റലുകൾ ആകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വില കമ്മിയായിട്ടൊക്കെ കിട്ടും അല്ലാത്ത ഹോസ്പിറ്റലുകളിലൊക്കെയാകുമ്പോൾ നല്ല ക്യൂ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ചിലവുകള് ഉണ്ടാവും ഒരുപാട് ക്യൂ നിന്നിട്ട് ഒക്കെയാണ് നമുക്ക് ഒരു ടോക്കൺ ഒക്കെ എടുക്കാൻ ഡോക്ടറെ കാണാൻ ആയിട്ട് ടോക്കൺ എടുക്കാൻ നല്ല ചെലവുള്ള ഹോസ്പിറ്റലുകൾ ഒക്കെ ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ മെഡിക്കൽ സർവീസ് കിട്ടണംന്നിണ്ടെങ്കിൽ നമ്മള് നല്ല രീതീല് കാശ് കൊടുത്തിട്ട് നമ്മള് എന്ത് ചെയ്യണം പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ കാണിക്കണം ഗവൺമെൻ്റ് ഹോസ്പിറ്റലുകളിൽ കാണിച്ചു കഴിഞ്ഞാല് കാശ് പറയുന്നേയുള്ളൂ പക്ഷേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ടൈമും എടുക്കും നമുക്ക് പെട്ടെന്ന് ഒന്നും അസുഖം അവരുടെ ശ്രദ്ധ പെട്ടെന്ന് നമുക്ക് ഇണ്ടാവാറില്ല പിന്നെ ഗവൺമെൻ്റ് ഹോസ്പിറ്റലുകളില് പൊതുവേ സ്റ്റാഫുകള് ഡോക്ടർസ് ആണെങ്കിലും നേഴ്സസ് ആണെങ്കിലും അവിടെയുള്ള രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന വിധംന്ന് പറയുന്നത് ഭയങ്കര മോശം ആയിട്ടാണ് മറിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആകുന്ന സമയത്ത് നമ്മള് കാശ് കൊടുത്തിട്ട് ആണെങ്കിൽ അവര് എന്ത് ചെയ്യും നമ്മളെ നല്ല രീതിയില് പരിചരിക്കും ആ ഒരു രീതിയിലാണി ഇന്ത്യയിലെ ആശുപത്രികൾ എന്ന് പറയുന്നത്